ഹലോ

ഹലോ കേൾക്കാമോ ആ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ ആ ഓക്കെ ആ ഉണ്ട് സാർ ഞങ്ങൾ വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കാനായിട്ട് അതുപോലെ തന്നെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ഇൻഷുറൻസും എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു നിശ്ചിത എമൗണ്ട് ക്ലെയിം കിട്ടുന്ന രീതിയിലുള്ള ഇൻഷുറൻസും ഞങ്ങൾ എടുക്കാറുണ്ട് ഇല്ല ഇല്ല ഇല്ല നമ്മൾ ടിക്കറ്റ് എടുത്തവർക്കാണ് ഇൻഷുറൻസ് കിട്ടുള്ളൂ ടിക്കറ്റ് എടുക്കാണ്ട് യാത്ര ചെയ്തവർക്ക് ഇൻഷുറൻസ് നമ്മൾ അവർ കമ്പനി അവർ കൊടുക്കില്ല അതാ അതാണ് വണ്ടിയുടെ ബാക്കിൽ ലെ വലതുവശത്ത് ആയിട്ട് വരും എമർജൻസി എക്സിറ്റ് അതാണ് അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ഒരു ചുറ്റിക ഉണ്ടാവും നമുക്ക് അത് വെച്ച് അത് ക്ലോസ് പൊട്ടിച്ചിട്ട് അത് ബ്രോക്ക് ചെയ്തിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് അത് എല്ലാവർക്കും എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഉപകരണം അവിടെ വെച്ചിട്ടുള്ളത് എല്ലാവർക്കും എടു എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അതുപോലെ തന്നെ വണ്ടിയിൽ ഒരുപാട് സേഫ്റ്റി വേറെ നമ്മൾ ചെയ്യുന്നും ഉണ്ട് വണ്ടിയുടെ ഇൻസൈഡ് ക്യാമറ ഉണ്ട് അതുപോലെ തന്നെ ഔട്ട്സൈഡ് ക്യാമറ ഉണ്ട് അതുപോലെ തന്നെ യാത്രക്കാരുടെ കംഫോർട്ടിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ഒരു മീഡിയ നമ്പർ വരെ അതിൻറെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ച് നിങ്ങൾക്ക് കംപ്ലെയിൻറ് രജിസ്റ്റർ ചെയ്യാം എല്ലാം കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം അതുപോലെ തന്നെ വണ്ടിയുടെ ഡയറക്ഷൻ എല്ലാം നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും എമർജൻസി ആയിട്ട് നമുക്ക് ഇപ്പം അതിനകത്ത് എമർജൻസി സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അത് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നമുക്ക് ഇപ്പോൾ മൊ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിലേക്ക് അതിൻ്റെ കാ ബെൽ റിങ്ങ് പോവുകയും അവിടെ അവർക്ക് അതിനെ പറ്റിയുള്ള വിവരങ്ങൾ അവർ ഉടനെ തന്നെ വണ്ടിയെ കണ്ട്രോൾ അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ അവിടെ സേഫ്റ്റി മെഷേഴ്സ് ഇപ്പം നമ്മൾ വണ്ടിയിൽ പുതുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ആ ഓക്കെ താങ്ക് യു താങ്ക് യു വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കുഴപ്പം ഒന്നും ഇല്ല ഓക്കെ താങ്ക് യു